വയനാട് ജില്ലയിലെ തനതായ കലാരൂപങ്ങൾ എന്നു പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കലോത്സവത്തിന് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ആൺകുട്ടികൾ കളിക്കുന്ന വട്ടപ്പാട്ട് ദഫ് അതുപോലെ പെൺകുട്ടികളുടെ ഒപ്പന പിന്നെ അതുപോലെ തിരുവാതിര പിന്നെ മാർഗ്ഗംകളി ഇതൊക്കെ വയനാടിൻ്റേതായ തനതായ കലാരൂപങ്ങളാണ് അത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സ്കൂളുകളിൽ കലോത്സവം നടത്തുമ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്നും മത്സരാർത്ഥികൾ മത്സരിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് മറ്റ് ഓരോ സംസ്കാരത്തെയും ഓരോ മതത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പനയും ദഫ് വട്ടപ്പാട്ട് എന്ന് എന്നൊക്കെ പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ സമുദായവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നു അതുപോലെ തിരുവാതിര എന്ന് പറയുമ്പോൾ പിന്നെ ഓണത്തിനെ സൂചിപ്പിക്കുന്നു ഒരു ആഘോഷത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ മാർഗ്ഗംകളി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസൊക്കെ അല്ലെങ്കിൽ പിന്നെ അന്നു കാലങ്ങളിലുള്ള ചേട്ടന്മാരുടെ വീടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്നത് അപ്പോൾ ഇതൊക്കെ ചില വയനാട്ടിൽ മാത്രം കാണപ്പെടുന്ന വയനാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്നാലും വയനാട് ജില്ല കലോത്സവത്തിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇത്തരം കലാരൂപങ്ങളാണ് അതുപോലെതന്നെ കരകൗശല വസ്തുക്കൾ എന്നു പറയുമ്പോൾ പിന്നെ കളിമണ്ണുകൊണ്ട് ഓരോ പിന്നെ ഓരോ ഓരോ വ്യത്യസ്ത തരത്തിലുള്ള പിന്നെ മൺചട്ടികളും അതുപോലുള്ള ഒരുപാട് നമ്മളെ വീടുകളിലെ പിന്നെ ഷോയ്ക്ക് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പിന്നെ അതുപോലെ കയർ ഒരുപാട് കയർ ഫാക്ടറി ഉണ്ട് പിന്നതുപോലെത്തന്നെ ഇത്തരം കരകൗശല വസ്തുക്കളും അതുപോലെ കലാരൂപങ്ങളും വയനാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇത് ഓരോ നമ്മുടെ ചരിത്രത്തെയും അതുപോലെ സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നത് തന്നെ ഇതാണ് ഇത് തലമുറകളിലൂടെ കൈമാറി കൈമാറി ഇന്നും ഇത് നില നിലകൊള്ളുന്നുണ്ട്